ഒരാഴ്ച മുമ്പ് ഞാനൊരു പ്രൊഡക്ട് ആമസോണിൽ ബുക്ക് ചെയ്തായിരുന്നു ഒരു ഒരു ഡ്രസ്സാണ് അത് അതിൽ കണ്ടപ്പോൾ നല്ല ഭംഗിതോന്നി നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ റെയ്റ്റും വലിയ മോശമില്ല ഒരു അഞ്ഞൂറ് ഫൈവ് ഹൻഡ്രഡ് ഒക്കെ ഉണ്ടായിരുന്നുള്ളു പക്ഷെ അത് എനിക്ക് കിട്ടിയത് ഇന്നലെയാണ് ഇന്നലെ കിട്ടി കയ്യിൽ കിട്ടി ഞാനത് തുറന്ന് നോക്കിയപ്പോൾ എന്താ പറയുക ഞാൻ ഉദ്ദേശിച്ച ഒരു സാധനമേ അല്ല അത് എനിക്ക് കിട്ടിയ സാധനവും ഞാൻ ബുക്ക് ചെയ്ത സംഭവവും രണ്ടും രണ്ടാണ് വ്യത്യസ്തമാണ് ഞാൻ അതിൽ അതിൽ പ്രിവ്യു കണ്ടിട്ടാണ് ഞാൻ പ്രിവ്യു അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനമേ അല്ല അത് ആ പിന്നെ കളറും സൈസും ഒക്കെ ഡിഫറെന്റ് ആണ് അത് എന്നെ സംബന്ധിച്ചെടുത്തോളം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു